ഹലോ ഗുഡ് ആഫ്റ്റർ ഗുഡ് ആഫ്റ്റര്നൂണ് മാഡം ഓഹ് ഞാൻ ഒരു ആല്വിന്റെ പേരന്റാണ് സെവൻത്ത് സ്കൂളിൽ പഠിക്കുന്ന ഏഴ് ബീയിൽ പഠിക്കുന്ന ഒരു കുട്ടിയടെ അമ്മയാണ് ആല്ഫിന് എന്നു പറയും അപ്പോൾ ആ ചുമ്മ അടുത്ത ആഴ്ച്ച ഞങ്ങളൊരു ഫാമിലി ടൂറ് പോവാന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു അത് മുന്കൂർ മേടിക്കാന് വേണ്ടയിട്ടാണ് ഞാനിപ്പം വിളിച്ചത് നിങ്ങൾ ഈ ഇപ്പോഴും അതറിയാം മേഡം എന്നാലും ഇതിപ്പം ഞങ്ങൾക്ക് നീട്ടി വെക്കാം മാറ്റി വെക്കാനോ പറ്റുകയില്ലാത്തത് ആണ് അതു ഞങ്ങൾ നേരത്തെ പ്ലാന് ചെയ്തിരുന്നതാണ് നമുക്ക് കിട്ടിയ ഡേറ്റ് ഇപ്പോഴാണ് പക്ഷെ അതിപ്പം മാറ്റി വെച്ചാൽ നമുക്കൊത്തിരി നഷ്ടം ഉണ്ടാവും അതുകൊണ്ടാണ് എക്സാമാണെന്ന് എനിക്കറിയാം കിട്ടില്ലയെന്നുള്ളതും അറിയാം എങ്കിലും അടുത്തൊരിത് പെര്മിഷന് എടുത്തിട്ട് ഒന്ന് പോകാമെന്നോര്ത്താണ് എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു ഫാമിലി ടൂറാണ് മേഡം ഇതൊത്തിരി നാൾ കൂടി ഇരുന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാന് ചെയ്തിരുന്നതും ബുക്ക് ചെയ്തിരുന്നുമാണ് ഇപ്പോഴാണ് നമുക്കതിന് സമയം കിട്ടിയത് അതുകൊണ്ടാണ് മാഡം മാറ്റി വെക്കാന് പറ്റത്തില്ല മേഡം അറിയാം എക്സാമാണെന്ന് എങ്കിലും ഒരു ഒര് ഫേവറ് ചെയ്യാമോ എന്നാന്ന് ചോദിച്ചാലത് മാറ്റി വെക്കാന് പറ്റത്തില്ല എക്സാം മാറ്റി വെക്കണ്ട അല്ല നിങ്ങൾ എക്സാം നടത്തിക്കോളു മേഡം എന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു ഫേവറ് എന്നു വെച്ചാൽ കുട്ടി വന്നു കഴിയുമ്പോഴത്തേക്കിന് വല്ലതും എക്സാമിന്റെ തലെ ദിവസം എങ്കിലും ഞങ്ങൾ തിരിച്ചെത്താം ഒരു നാലു ദിവസത്തെ കാര്യമേ ഉള്ളു മേഡം അത് തലേ ദിവസം ഞങ്ങൾ വരാൻ നോക്കാം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ എക്സാം ചെലപ്പം മിസ്സാകുമായിരിക്കും അതൊന്ന് കണ്ടിന്യു അല്ലാതെ കണ്ടിന്യു ചെയ്യാന് പറ്റുമോയെന്ന് അറിയാനാണ് പിന്നീട് നടത്താന് പറ്റുമോ എന്നറിയാന് വേണ്ടിയിട്ടായിരുന്നു അവരിപ്പോൾ ഒരു ആ ഒരു കുട്ടിയിനെയായിട്ട് നടത്താന് അവർ സമ്മതിക്കുമോ ഇല്ലയോയെന്നുള്ളത് അറിയത്തില്ല എങ്കിലും മേഡം അവർ കേൾക്കുമല്ലോ അത് അനുസരിച്ചാണ് പറയുമോയെന്ന് ചോദിച്ചത് കുട്ടിയെക്കൊണ്ട് സാധിക്കും അതിനുള്ളതൊക്കെ ഞാന് വീട്ടിൽ പ്രാക്റ്റീസ് കൊടുത്തോളാം കുട്ടിയെ എഴുതിക്കുകയും ചെയ്തോളും ഇല്ല മേഡം അത് ഞാന് നല്ലതായിട്ട് പഠിപ്പിച്ച് വെച്ചോളാം പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാന് പഠിപ്പിച്ചോളാം കിട്ടുന്ന ഇൻട്രവെല്ലിന് ഞാൻ പിള്ളാരെ പഠിപ്പിച്ചോളാം അവർ പഠിക്കാന് മിടുക്കരായ പിള്ളാരാണ് അതുകൊണ്ട് കുഴപ്പമില്ല എങ്കിലും ഞാന് അവരെ ഒന്നുകൂടെ ഞാന് ട്രെയിന് ചെയ്ത് പഠിപ്പിച്ചോളാം അതൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല ഒന്നുകൂടെ എക്സാം കണ്ടക്റ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളു അതിനെന്ത് താല്പര്യം കാണിച്ചു തരുമായിരുന്നെങ്കില് വലിയ ഉപകാരമായിരുന്നു

ഉം ഉം നമ്മൾ ചെയ്തോളാം മാഡം ഇത് ഞങ്ങൾ ആവർത്തിക്കില്ല കാരണം ഇത് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണെ ഓക്കെ ഓക്കെ താങ്ക് യു മേഡം